ഇപ്പോൾ ചിത്രരചനയിലൊക്കെ നമ്മൾ ഒരു ഉപദേശം കൊടുക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നല്ല രീതിയിലുള്ള ഒരു ഭാവനയും കാര്യങ്ങളുമൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു വരിക അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വരയ്ക്കാൻ ഒക്കെ കഴിയുള്ളൂ നമ്മൾ ഇപ്പോൾ ഒരു ചിത്രം വരയ്ക്കണം ഇപ്പം ഒരാളുടെ മുഖം വരയ്ക്കണമെങ്കിൽ തന്നെ നമ്മൾ അത് കണ്ണും കാര്യങ്ങളൊക്കെ കറക്ട് ആയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ ഇരുത്തുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ എന്നാൽ മാത്രമേ നമുക്കത് വരച്ചെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ അപ്പം നമ്മളിപ്പോൾ ഒരാളെ ഇപ്പോൾ അതിലെ നടന്നുപോയ ഒരു പുള്ളീന്റെ മുഖം നമ്മൾ കറക്ട് ക്യാപ്ചർ ചെയ്യണം അപ്പോൾ എന്നാൽ മാത്രമേ നമുക്കതിനു നല്ല രീതിയിലുള്ളൊരു ചിത്രം വരച്ച് വരച്ചെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ അപ്പോൾ അവരുടെ കണ്ണാണെങ്കിലും മൂക്കാണെങ്കിലും ചെവി ആണെങ്കിലും അങ്ങനെ എന്താ പറയുക ഇപ്പം നമുക്കതെല്ലാം നല്ല രീതിയിൽ വരച്ചെടുക്കണമെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഭാവനയും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് പിന്നെ നമ്മൾക്ക് നല്ലൊരു ഓർമ്മശക്തിയും കാര്യങ്ങളൊക്കെ വേണം പിന്നെ നമ്മുടെ കൈ നല്ല രീതിയിൽ വഴങ്ങണം നമ്മൾ എപ്പോഴും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഏതുനേരം ചെയ്തുകൊണ്ടിരിക്കണം കാരണം എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വരച്ചിട്ട് ഇപ്പം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം കൈ വിറയ്ക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറ്